കോഴിക്കോട് ജില്ലയില് രണ്ടായിരത്തി ഇരുപത് നവംബർ രണ്ടിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടൊരു ഒരു ക്ഷേമ സാമൂഹിക ക്ഷേമ പരിപാടിയാണ് ഇനേബിളിംഗ് കോഴിക്കോട് ഈ സംരംഭത്തിൻ്റെ അല്ലെങ്കിൽ ഈ ക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് കോഴിക്കോട് ജില്ലയിലെ ഭിന്നശേഷിക്കാരായ ആൾക്കാര് അതില് യുവതികളും യുവാക്കളും എല്ലാവരും ഉൾപ്പെടും ഭിന്നശേഷിക്കാരായ ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി അവരെ എനേബിൾ ചെയ്യാൻ വേണ്ടീട്ട് എന്ന് വെച്ചാല് അവരും സമൂഹത്തിൻ്റെ എല്ലാ നിലകളിലേക്കും മുൻനിരകളിലേയ്ക്ക് വരാൻ വേണ്ടിയിട്ട് കോലി കോഴിക്കോട് കളക്റ്ററുടെ നേതൃത്വത്തില് നടത്തപ്പെട്ട അല്ലെങ്കിൽ തുടങ്ങി വെച്ചൊരു പരിപാടി ആണ് എനേബിളിംഗ് കോഴിക്കോട് നമ്മടെ മഹാനടനായ മമ്മൂട്ടി ആയിരുന്നു അത് ഉദ്ഘാടനം ചെയ്തിരുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്ത് അത് കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും നല്ലൊരു സാമൂഹിക ക്ഷേമ പരിപാടി ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഈ ഭിന്നശേഷിക്കാര് പുറകോട്ട് നിക്കുന്നത് വളരെ സമൂഹത്തിന് നമ്മടെ ഭാവിലേയ്ക്ക് വളരണമെങ്കിൽ അത് വലിയൊരു കുറവാണ് അപ്പം അവരും മുന്നോട്ട് വന്ന് കഴിഞ്ഞാലേ നമ്മുടെ സമൂഹം എല്ലാ രീതിയിലും മുന്നോട്ട് പോവുകയുള്ളു